ഹലോ ആ ഇത് കണ്ണൂരിലിന്ന് ലിബർട്ടി സിനിമാസല്ലെ ആ എനിക്കൊരു ആറ് ടിക്കറ്റ് വേണമായിരുന്നു നാളത്തേക്ക് ക്രിസ്റ്റീന്ന് പറയുന്ന സിനിമേടെയാണ് നാളെ അവസാനത്തെ ഷോയെപ്പോൾ ഒമ്പതരക്കാണോ അപ്പം ന എങ്ങനെയാ ബുക്കിങ്ങൊക്കെ കുറേ ആൾക്കാരുണ്ടോ അല്ലെ സീറ്റ് കിട്ടുവോ ആറ് സീറ്റുകള് അടുത്തടുത്ത് കിട്ടാൻ ചാൻസുണ്ടോ അ എങ്ങനെയാ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ എങ്ങനെയാണ് മുമ്പിലെത്ര അങ്ങനെ എങ്ങനെയായിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആ ഫാമിലിക്കൊക്കെ ഒരു കംഫോർട്ടായിട്ട് ഇരി സൗകര്യപൂർവ്വം ഇരിക്കേണ്ടതെങ്കിൽ അത് ഏടെയാ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് മുമ്പിലേത്തെയാണോ അല്ല നടുഭാഗത്താണോ അല്ലെ എവിടെയാണ് ബുക്ക് ചെയ്യേണ്ടത് ആ അപ്പോൾ അവിടെ നമ്മളെ സൗകര്യപൂർവ്വം ഇരിക്കാൻ പറ്റുവോ ബാൽക്കണീല് ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുവോ ബാ ബാൽക്കണീല് ഇരുന്നാൽ ആ ഓക്കെ ഓക്കെ എങ്ങനെയാണ് പൈസയൊക്കെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് മുമ്പിലത്തേന് മാറ്റവുണ്ടോ ബാൽക്കണീലെ സംബന്ധിച്ചിട്ട്

ഓ അമ്പത് രൂപയുടെ ഡിഫറൻസുണ്ടല്ലെ ആ ഓക്കെ ഓക്കെ മുമ്പിലത്തേനെ അപേക്ഷിച്ചിട്ട് നൂറ് രൂപയുടെ ഡിഫറെൻസ് എങ്ങനെയാണ് സ്ക്രീനൊക്കെ എങ്ങനെയാണ് ഏതാണ് ടു ഡിയാണോ ത്രീ ഡിയാണോ ഫോർ ഡിയാണോ ആ അതെയതെ എങ്ങനെ ഉം അല്ലാ എങ്ങനെ ആ എങ്ങനെയുണ്ട് സിനിമയുടെ ആ ഒരു ബുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ശരാശരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നല്ല റെസ്പോൺസസ് അല്ലെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഓൺലൈനിലൂടെ ഇങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റൂല്ലേ അപ്പോൾ എനിക്കൊരു ആറ് സീറ്റ് വേണമായിരുന്നു ഉം ആറു സീറ്റ് ആ നാളേക്കാണ് നാളേക്കൊരു ഒമ്പതര ആവുമ്പോഴേക്കുള്ള ഷോവിനാണ് വേണ്ടത് ഈ നമ്പറിലേക്ക് അതേതായിരിക്കും സൗകര്യം ജിമെയിലായിട്ട് അയക്കുന്ന ആയിരിക്കൂലെ സൗകര്യം അപ്പോൾ ഒരു കാര്യം ചെയ്യ് ജിമെയിലായിട്ട് അയച്ചോളു ഞാൻ എന്നിട്ട് അവിടെ വന്ന് കാണിക്കുക ആണോ വേണ്ടത് ആ ഓക്കെ ഓക്കെ അപ്പം ഒരു കാര്യം ചെയ്യ് താങ്കൾ ജിമെയിലായിട്ട് അയച്ചോളു ഒരു ആറ് ടിക്കറ്റ് ബുക്ക് ചെയ്തോളു ഇത് എവിടെയാ സിനിമാസ് വരുന്നത് എനിക്ക് ശരിക്കും അറിയില്ല കണ്ണൂര് ബസ്റ്റാൻഡിൻ്റെ എവിടെയാണ് വരുന്നത് മുൻവശത്താണോ അല്ലെ എതിർവശത്ത് അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ആറ് ടിക്കറ്റ് ബുക്ക് ചെയ്തോളു ആ ഓക്കെ ശരി താങ്ക് യു ആ